ഹലോ സാറെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾക്ക് രണ്ടര ഏക്കറ് കൃഷി ഉണ്ടായിരുന്നു അത് വെള്ളം പൊങ്ങി എല്ലാം നശിച്ചു പോയി അത് ഇന്ഷൊറന്സ്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ഇതാണ് അവിടെ സമര്പ്പിക്കേണ്ടത് അതിന് ഒരു എനിക്ക് ആവിശ്യമായിട്ടുള്ള സഹായം ചെയ്ത് തരണം എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഞാന് പിന്നെ എന്തൊവാ വേണ്ടതെന്ന് വച്ച് കഴിഞ്ഞാൽ സാറ് അതിനുള്ള പിന്നേ ആധാര് കാർഡോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ അങ്ങനെയൊക്കെ ഉള്ള രേഖകൾ എന്തൊവാ അതിന് വേണ്ടതെന്നുള്ളത് സാറ് സമര്പ്പിക്കണം നമുക്ക് ഒത്തിരി നഷ്ടം വന്നതാണ് കാ കാര്ഷികമായിട്ട് നമ്മൾ ഒത്തിരി മുടക്കി കൊയ്യാറായി നിന്നിരുന്ന വിളവാണ് നശിച്ച് പോയത് അതുകൊണ്ട് സാർ അതിന് വേണ്ടുന്നത് പേപ്പറുകൾ എന്തൊക്കെയാണന്ന് എന്നോട് ഒന്നു പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും